കേരളത്തിൻറെ ഒരു വടക്കേ ഭാഗത്ത് ഒരു അഞ്ചാമതായി സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് മലപ്പുറം പിന്നെ മലപ്പുറം ജില്ലയിൽ കുറേ ജനങ്ങൾ ഉണ്ട് അതിനെത്തന്നെ നിലവിൽ കേരളത്തിൽ കൂടുതൽ ഗ്രാമപഞ്ചായത്തൊക്കെ ഉള്ളൊരു ജില്ലയായിട്ടാണ് മലപ്പുറം ഉള്ളത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂൺ പതിനാറ് പതിനാറിനാണ് മലപ്പുറം ജില്ല ഉണ്ടായത് അതിൽ തന്നെ ഏഴ് താലൂക്കുകളും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒക്കെയായി പിന്നെ തൊണ്ണൂറ്റിനാല് ഗ്രാമ പഞ്ചായത്തൊക്കെ ഉള്ള ജില്ലയാണ് അതാണ് മലപ്പുറം മഞ്ചേരി കൊണ്ടോട്ടി തിരൂർ പൊന്നാനി പെരിന്തൽമണ്ണ നിലമ്പൂർ കോട്ടയ്ക്കൽ വളാഞ്ചേരി താനൂർ പരപ്പനങ്ങാടി തിരൂരങ്ങാടി എന്നിങ്ങനെ പതി പന്ത്രണ്ട് നഗരസഭകളൊക്കെ ഉണ്ട് പിന്നെ കാലിക്കട്ട് സർവ്വകലാശാല തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവ്വകലാശാല പിന്നെ അലീഗഡ് മുസ്ലീം യൂണിവേഴ്സിറ്റി അങ്ങനെ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോഴിക്കോട് വിമാനത്താവളം ഒക്കെ മലപ്പുറം ജില്ലയിലാണുള്ളത് പിന്നെ കോഴിക്കോട് സാമൂതിരി സാമൂതിരിയുടെ തലസ്ഥാനമായിരുന്നു നെടിയുർ ഇപ്പം പിന്നെ കൊച്ചി രാജാവിൻ്റെ തലസ്ഥാനമായിരുന്നു പെരുമ്പടപ്പ് പിന്നെ അങ്ങനെ കുറേ പിന്നെ മലബാർ കലാപം ഒക്കെ മലബ മലപ്പുറത്ത് നടന്നിട്ടുണ്ട്